ഈ പ്രദേശത്ത് പരമ്പരാഗതമായ വിഭവങ്ങള് അച്ചാർ പാല്പ്പായസം അട ഉണ്ണിയപ്പം ഇതൊക്കെ ഞങ്ങളുടെ പരമ്പരാഗതമായ വിഭവങ്ങളാണ് അവിയലും ഒട്ടും മോശമുള്ളതല്ല അവിയലും ഇതിനോടൊപ്പം ചേരാവുന്ന ഒരു വിഭവം തന്നെയാണ് കൂടുതൽ ആളുകള്ക്കും ഉണ്ണിയപ്പവും ഇറച്ചിയും അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അതേമാതിരി തന്നെ പാല്പ്പായസവും പപ്പടവും അതും രണ്ടും നല്ല ഒരു കോമ്പിനേഷൻ വിഭവങ്ങളാണ് പിന്നെ നമുക്ക് അച്ചാർ കണ്ണിമാങ്ങ അച്ചാര് അതിന്റെ രുചിയെ കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ പരമ്പരാഗതമായ രീതിയില് കണ്ണിമാങ്ങ അച്ചാര് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാത്രം ചോറ് കഴിക്കാന് കൂടി ഈ ഒറ്റ കണ്ണിമാങ്ങ അച്ചാറും ലേസം അതിന്റെ കറിയും മതി നമ്മൾ ചാറ് എന്ന് പറയും അതൊക്കെ നമ്മുടെ പുരാതനമായും പരമ്പരാഗതമായും നടന്നു വരുന്ന തലമുറകള് കൈമാറിയ ഒരു അനുഭവമാണ് ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ പാചക പുസ്തകങ്ങളോ അല്ലെങ്കില് പ്രമുഖ പബ്ലികേഷന്സൊന്നും പുസ്തകങ്ങളൊന്നും ഇറയ്ക്കാറില്ല ഇത് നമുക്ക് മുത്തശ്ശിമാരില് നിന്നും കിട്ടുന്ന അവരുടെ കൈവഴക്കത്തിന്റെയും പരമ്പരാഗതമായ അറിവിലൂടെയുമാണ് നമ്മള് ഈ തരത്തിലുള്ള വിഭവങ്ങള് തയ്യാറാക്കുന്നത് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാന് പറ്റാത്ത വിഭവങ്ങളാണ് പാല്പ്പായസവും പപ്പടവും കണ്ണിമാങ്ങ അച്ചാർ ഇങ്ങനെ ഉള്ളതൊക്കെ പിന്നെ സല്ക്കാരങ്ങളിലേക്കാണ് നമ്മള് ഉണ്ണിയപ്പം ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നത് അതിന്റേത് ആ രുചികളൊക്കെ ഒന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അത് ഒരു വട്ടം കഴിച്ചവര്ക്ക് പ്രത്യേകം അറിയാമല്ലോ